ഞങ്ങളുടെ ഗ്രാമമൊരു ശാന്ത സുന്ദരമായ ഒരു ഗ്രാമമാണ് അവിടെ പ്രത്യേകിച്ച് ആരുമായിട്ടും പ്രത്യേക മതങ്ങൾ തമ്മിലുള്ള ബഹളമോ ബഹ വഴക്കോ ഒന്നും തന്നെയില്ല എല്ലാവരും ഒരു പോലെ സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നു ആരും മറ്റൊരാൾക്കെന്തൊരാവശ്യം വന്നാലും അങ്ങോട്ടുമിങ്ങോട്ടും സഹായിച്ചും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ആവശ്യമായെതെല്ലാം ചെയ്തു കൊടുത്ത് ജീവിക്കുന്നു ആർക്കും ആരോടും ഒരു പ്രത്യേക വാശിയോടെയോ ഉള്ള ഒരു ജീവിത രീതിയല്ല അതു കൊണ്ട് ജീവിക്കാൻ ഏറ്റവും സുന്ദരം മായൊരു ഗ്രാമമാണ് ഗ്രാമമാണ് നമ്മൾക്കാവശ്യമായ എൽ ഒരുമാതിരി ആവശ്യമായ പൽ പച്ചക്കറികളാണെങ്കിലും പഴങ്ങളാണെങ്കിലും നമ്മൾ ആ സ്വന്തമായ പ്രദേശത്ത് ഉണ്ടാക്കി വിഷരഹിതമായി കഴിക്കുന്നതിനും കഴിക്കുന്നതിനു പോലും അതിനാൽ നമുക്ക് സാധിക്കുന്നു എല്ലാ സാധനങ്ങളും നമ്മൾ കടയിൽ നിന്നു വാങ്ങാതെ തന്നെ നമ്മുടെ പറമ്പുകളിൽ ഉൽപാദിപ്പിച്ച് ശുദ്ധമായ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നു എന്തു സാധനങ്ങൾക്കും നമുക്ക് മാക്സിമം ഉപയോഗിക്കാനായിട്ട് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഇതായ എല്ലാ സാധനങ്ങളും തന്നെ ലഭിക്കുന്നു അതൊഴിച്ചുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മളൊരു ഗ്രാമ പ്രദേശത്ത് ജീവിക്കുന്നവർ പുറത്തു നിന്നും ആശ്രയിക്കുന്നത് ശുദ്ധമായ വായു വെള്ളം വെള്ളം പോലും നമുക്കൊന്നും വില കൊടുത്തു വാങ്ങാതെ ആ ഒരു നമ്മടേതായ ഒരു മാലിന്യങ്ങളുമില്ലാത്ത വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു ഒരു പുറത്തോട്ടിറങ്ങിയാൽ ആണെങ്കിൽ പോലും കാറ്റിനാണെങ്കിലും ഈ പാർക്ക് നമുക്കും മറ്റുള്ള പട്ടണ പ്രദേശത്തൊക്കെ പോയി ജീവിക്കുകയാണെങ്കിൽ ഒരു ഇച്ചിരി നേരമൊന്ന് പുറത്തിറങ്ങി ഇരിക്കണേത്തന്നെ ഒരു ഒരൂ പാർക്കിലോ മറ്റോ ബീച്ചിൽ ഒക്കെ പോയി ഇരിക്കേണ്ടത് ഇതാണ് നമുക്ക് സ്വന്തമായ ഇപ്പം പരിസരത്ത് തന്നെ എത്രയോ വിശാലമായ ലോകങ്ങളിലേക്ക് നമുക്ക് പിള്ളേർ ഇറങ്ങാൻ സാധിക്കുന്ന പിള്ളേർക്കാണെങ്കിലും ഓടിക്കളിക്കുവാനോളം മുറ്റങ്ങളും ഒക്കെത്തന്നെ ഉപയോഗ് ഉപയോഗിക്കാൻ സാധിക്കുന്നു എല്ലാ രീതിയിലും കൊണ്ട് ആരും ആരുമായിട്ടും ഒരു ഒത്ത് സ്വന്തം വീട്ടിലേക്കൊതുങ്ങിക്കൂടാതെ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മുടെ ഗ്രാമ പ്രദേശങ്ങളിൽ സാധ്യമാകുന്നുണ്ട് ഓരോ വീട്ടിലും ഇതേപോലെ ആ അടുത്തുള്ള വീടുകളിൽ അവരുടെ ആവശ്യങ്ങൾ പോലും നമുക്ക് അറിഞ്ഞ് കണ്ട് സഹായിക്കുന്നതിന് ഈ ഗ്രാമ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് സാധിക്കുന്നു പരസ്പരം സഹായിച്ചും എന്തൊരു ആവശ്യങ്ങളിലും അ അള്ളും മറ്റുള്ളവരെ സഹായിച്ചുമൊക്കെ ജീവിക്കുവാനായിട്ട് ഈ ഗ്രാമ പ്രദേശത്തിലുള്ള ആക്ക് എന്തു കൊണ്ടും ഒരു പൊതൂ സമൂഹത്തിൽ വളരെയധികം പൊതു സമൂഹവുമായി ഇണങ്ങി ഒരൂ മറ്റുള്ളവരുമായിട്ട് ജീവിക്കുന്നതിന് ഈ ഗ്രാമ പ്രദേശത്ത് ജീവിക്കുന്നവർക്ക് സാധ്യമാകുന്നു